കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരുപാട് വ്യവസായങ്ങളും അതുപോലെ ബിസിനസ്സുകളും ഉയർന്ന് വരുന്നുണ്ട് അത് കോഴിക്കോട് ജില്ലയിലെ സമ്പത്ത് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുമാണ് അവിടെയുള്ള വ്യവസായങ്ങളും ബിസിനസ്സുകളൊക്കെ ജില്ലയുടെ തന്നെ ഉയർച്ചക്ക് കാരണം അകുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് വ്യവസായങ്ങൾ ഇപ്പോൾ പൈപ്പുകളുടെയും വീഡിയോകോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഫൈബർ ഗ്ലാസ് പ്രൊഡ്യൂ പ്രൊഡ്യൂസർ അങ്ങനെ ഒരുപാടൊരുപാട് വ്യവസായങ്ങളവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബിസിനസ്സും ഇപ്പോൾ അവിടെ നാളികേരം കൂടുതലായിട്ട് കൂടുതൽ കൂടുതൽ ഉത്പാദിപ്പിക്കുക അതിൻ്റെ ബിസിനസ്സ് അതുപോലെ എണ്ണയുടെ അങ്ങനെ ഒരുപാടൊരുപാട് വ്യവസായങ്ങളിന്ന് ജില്ലയിൽ തന്നെ ഉണ്ട് അത് ജില്ലയിലെ എല്ലാ വികാസത്തെയും അതുപോലെ അതിൻ്റെ അത് ഇവിടെ ഉള്ള ആൾക്കാരുടെയും മെച്ചപ്പെട്ട വളർച്ചക്കു വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് പിന്നെ അവ നേരിടുന്ന വെല്ലുവിളിയെന്ന് പറയുമ്പോൾ ഒരു ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും കുറവാണ് അങ്ങനെയുള്ള വ്യവസായങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരുപാട് ഫാക്ടറികളുണ്ട് ഒരുപാട് കെമിക്കൽസ് ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ അതൊക്കെ നമുക്ക് അതിൻ്റെ മലി മാലിന്യങ്ങളൊക്കെ തള്ളേണ്ട ഒരാവശ്യം ഉണ്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ അത് മാലിന്യമൊക്കെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന മാലിന്യമൊക്കെ നല്ല രീതിയിൽ അത് തള്ളിയില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് തന്നെയാണ് അത് വെല്ലുവിളിയായിട്ട് മാറുന്നത് അതുകൊണ്ടു തന്നെ വ്യവസായങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ അവിടെയുള്ള ആൾക്കാർക്ക് ദോഷകരമായും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് വ്യവസായവും ബിസിനസ്സും എല്ലാം തന്നെ